ഹലോ സാർ ഞാൻ വിളിച്ചത് സാർ ഞാന് വൈദ്യുതി ബോർഡിൽ നിന്ന് ഒരു പരാതി ഞാനവിടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു സാർ അപ്പോൾ അതിൻ്റെ പ്രതികരണത്തില് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല സാറപ്പം അതിന് ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അത് നമുക്ക് തിരിച്ച് പ്രതികരിക്കേണ്ട സറിനും മര്യാദ അല്ലേ സാർ അപ്പം അത് ഞാനാ അവരുടെ ആ പ്രതികരണത്തിലോട്ട് സാറ്റിസ്ഫൈഡ് അല്ല അപ്പം അത് സാറിനൊന്ന് വിളിച്ച് ഈ രീതിയിലേക്കൊന്ന് വിളിച്ച് അറിയിക്കാനായിട്ട് ഞാൻ ചെയ്തായിരുന്നു സാർ അപ്പം അത് എനിക്കിങ്ങനൊരു ഇഷ്യു ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ അതൊന്ന് ചെയ്യുവാണെങ്കില് നല്ലതായിരുന്നു അവരെ കോണ്ടാക്ട് ചെയ്യുവായിരുന്നുവെങ്കിൽ